പത്തൊൻപത് പൂജ്യം ഒന്ന് ആയിരത്തിത്തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ട് ഇരുപത് അഞ്ച് രണ്ടായിരം ഇരുപത്തൊന്ന് മൂന്ന് ആയിരത്തിത്തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുപ്പത് ഒന്ന് ആയിരത്തിത്തൊള്ളായിരത്തി തൊണ്ണൂറ് ഇരുപത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്